മൃഗവളർത്തലില് ഒരു നമുക്ക് പശുവിനെ ഒക്കെ നമ്മള് വീട്ടിൽ വളർത്തിയാല് അതിന് അനുസരിച്ച് നല്ല രീതിയിൽ അതിനെ സംരക്ഷിക്കുകയും സംരക്ഷിക്കുന്നതിന് അനുസരിച്ച് നല്ല രീതിയിൽ പാല് കിട്ടുകയും ചെയ്യുന്നു ആ പാലാണെൽ നമുക്കത് ഏറ്റവും പ്രയോജനമാകും അത് എന്നിട്ട് കൊടുക്കാനാണെലും സാധിക്കും ന്ന അതിനെ നല്ല രീതിയിൽ സംരക്ഷിച്ച് നല്ല രീതിയിൽ അതിന് വേണ്ട സാധനങ്ങള് കൊടുക്കുകയോ ഭക്ഷണങ്ങളാണേലും കൊടുക്ക് അതിന് അനുസരിച്ച് കൊടുക്കുന്നതിന് അനുസരിച്ച് പാല് കിട്ടും പാല് കിട്ടുന്നതിന് അനുസരിച്ച് നമുക്ക് വീട്ടിലും പ്രയോജനമാകും വീട്ടിൽ നിന്നത് നമുക്ക് പീടികയിലാണെങ്കിലും കൊടുക്കാൻ സാധിക്കും പിന്നെ അതിനെ അതിനെ വേണ്ട കാൽഷ്യവും അങ്ങനെ ഉള്ള സാധനങ്ങളും എല്ലാം അതിന് വേണ്ട സംരക്ഷണം നൽകി അതിന് അനുസരിച്ച് പാല് കിട്ടുകയും ചെയ്യും അത് നമുക്കത് പ്രയോജനമാകും വെളിയിൽ നമുക്ക് കൊടുക്കാനും സാധിക്കും പിന്നെ പശുവിനെ വളർത്തുമ്പോളത്തേക്ക് അതിനെ നല്ല രീതിയിൽ വൃത്തിയായ രീതിയിൽ വളർത്തുകയും അതിന് രാവിലെയും അതിന് രാവിലെയും വൈകിട്ടും രണ്ട് നേരം കുളിപ്പിക്കുകയും ചെയ്യുമ്പോൾ അതിൻറ്റേതായിട്ട് അതിന്റെ ശരീരത്തിന് ഒര് രക്ഷ ആയിരിക്കും കിട്ടുന്നത് നല്ല നല്ല രീതിയിൽ ഉള്ള രക്ഷ ആയിരിക്കും കിട്ടുന്നത് അങ്ങനെ നല്ല രീതിയിൽ അതിനെ സംരക്ഷിച്ച് അതിന് അനുസരിച്ചുള്ള നേട്ടവും കിട്ടും അതുപോലെ തന്നെ എന്നിട്ടതിനെ വളർത്തിയെടുത്ത് കഴിയുമ്പം അതിന് കുട്ടി ആയിക്കഴിയുമ്പോഴത്തേയ്ക്ക് ആണെങ്കിലും അതിനെ കൊടുക്കുകയും അങ്ങനെ നല്ല രീതിയിൽ ഒരു നേട്ടം കിട്ടും മാം അതിനെ കോഴികളെ വളർത്തിയാലാണേലും കോഴികളെ വളർത്തിയതിന്റെ മുട്ട എടുത്താണെങ്കിലും മുട്ട നമുക്ക് വീട്ടാവിശ്യത്തിനെടുക്കുകയും ചെയ്യാം പിന്നെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് കൊടുക്കുകയും ചെയ്യാം അത് കോഴികളെ ഒരു കുറച്ച് വളർത്തി കഴിയുമ്പം വെളിയിലേക്ക് മാംസത്തിന് എടുക്കാൻ വേണ്ടി കൊടുക്കുകയാണേലും അങ്ങനെ ഉപയോഗിക്കുകയും എല്ലാം ചെയ്യാം